ഹലോ ഇത് ഇന്ത്യൻ കോഫി ഹൗസ് ആണോ റിസപ്ഷനിൽ നിന്നല്ലെ സംസാരിക്കുന്നത് ഞാന് ഒരു പത്ത് പൊറോട്ടയും ഒരു ബിരിയാണിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെ ചിക്കൻ ബിരിയാണി പക്ഷേ എനിക്ക് പൊറോട്ട മാത്രമേ കിട്ടിയുള്ളല്ലൊ ബിരിയാണി കിട്ടിയില്ല എപ്പഴത്തേക്കിന് കിട്ടും എന്ത് പറ്റിയതാണ് കൊണ്ടുതരുവോ ആരെങ്കിലും അതോ ഇല്ല താമസം ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്തേക്കാം കൊണ്ടുതരുവോ എപ്പോൾ വരും ഓക്കേ അരമണിക്കൂറിനുള്ളിൽ വരുമോ ശരി ഓക്കെ